ഹലോ എനിക്ക് നാളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് പോണമായിരുന്നു ഇവിടെന്ന് അരമണിക്കൂർ ഉള്ളു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പക്ഷേ ഒരു ക്യാബ് വേണമായിരുന്നു എ അത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത് രാവിലെ ഏഴുമണിക്ക് എത്തത്തക്ക രീതീൽ നിങ്ങൾ അത് അറേഞ്ച് ചെയ്യുമോ എങ്കിലെ എനിക്ക് എൻ്റെ സാധനങ്ങളക്കെ പാക്ക് ചെയ്ത കൃത്യസമയത്തെനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുവൊള്ളൂ അതനുസരിച്ച് നിങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് ഡ്രൈവറെ വിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു